മഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ പരിധിയിലാണ് ഞാൻ താമസിക്കുന്നത് മുനിസിപ്പാലിറ്റി എന്റെ നാട്ടിലൊരുപാട് തരം ജലാശയങ്ങളും എല്ലാതു ഉള്ളൊരു കൊച്ചു ഗ്രാമമാണ് എന്റേത് അത് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അതായത് ഇപ്പോഴതു നശിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥയിലാണ് അതുള്ളത് എല്ലാ ജലാശയങ്ങളാണെങ്കിലും മണ്ണിടിഞ്ഞിട്ടും കമ്പിവേലി ഇല്ലാഞ്ഞിട്ടും ഒക്കെത്തന്നെ വളരേ അധികം ശോഷിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് പക്ഷെ അതിനൊക്കെ ഒരു നല്ല രീതിയിലേക്ക് അതായത് ആളുകൾക്ക് ഉപകാരപ്രദമായ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും എൻ്റെ മുനിസിപ്പാലിറ്റി ഞങ്ങളുടെ മുനിസിപ്പാലിറ്റി ചെയ്യുന്നുണ്ട് മാത്രമല്ല ഞങ്ങളുടെ നാട്ടില് വീടുകളില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ വീടുകള് നൽകി കൊടുക്കുന്നുമുണ്ട് മഞ്ചേരി മുനിസിപ്പാലിറ്റി അതിലൂടെ ഞങ്ങളുടെ നാടിൻ്റെ വലിയൊരു ദാരിദ്ര്യത്തിൽ നിന്ന് അവരെ കരകയറ്റാന് ഞങ്ങളുടെ മഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് ഇതുവരെ സാധിച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളുടെ ഇടയിലുണ്ട് നല്ല രീതിയില് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണങ്കിലും കുട്ടികൾക്ക് ഇനി സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള എല്ലാ കുട്ടികളെ കുട്ടികളെ തെരഞ്ഞെടുത്ത് അവർക്ക് സൗജന്യമായിട്ട് വിദ്യാഭ്യാസം ഒരുക്കുന്നതിലൂടെയും നല്ലൊരു ഒരു സാമ്പത്തിക സ്ഥിതി ജനങ്ങൾക്ക് ഉറപ്പ് വരുത്താന് ഒരുപാട് ഒരുപാട് കമ്പനികൾ അവർക്കുള്ള എല്ലാ സഹായങ്ങളും ചെയ്തുകൊടുക്കുന്നത് മഞ്ചേരി മുനിസിപ്പാലിറ്റിയാണ്